മൃഗങ്ങളെ വളര്ത്തുന്നത്തിൽ കർഷകരൊരുപാട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് മെയ പൊതുവായിട്ടവരനുഭവിക്കുന്ന പ്രശ്നമാണ് വിവിധരം രോഗങ്ങൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിവരുന്ന രോഗങ്ങൾ ഒരുപാട് മൃഗങ്ങൾ ചത്ത്പോകുന്നത് പെട്ടന്നൊന്നും മരുന്ന് ലഭിക്കാതെ വരുന്ന അവസ്ഥ ഡോക്ടർമാരുടെ സേവനവൊക്കെ മോശവായിട്ട് വരുന്നത് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മെഡിസിൻ മരുന്നുകൾ ലഭിക്കാത്തത് ഇവയെല്ലാം മൃഗങ്ങളെ വളര്ത്തുന്നവരനുഭവിക്കുന്ന വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ചൂട് കാലത്ത് അവര്ക്ക് മതിയായ ഭക്ഷണം കൊടുക്കാന് സാധിക്കാത്തത് വെള്ളം കൊടുക്കാന് സാധിക്കാത്തത് ഇതൊക്കെയാണ് കര്ഷകരുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ആ എന്റെ വീട്ടിൽ ഞങ്ങൾ വളര്ത്തുന്ന മൃഗങ്ങൾ ഞങ്ങൾ അവിടില്ലാത്ത സമയത്ത് ഞങ്ങളുടെ അയല്വാസികൾ ഞങ്ങളെ സഹായിക്കാറുണ്ട് ഭക്ഷണം കൊടുക്കാനും അവര്ക്ക് അവരെ ജെസ്റ്റ് കുളിപ്പിക്കാനും എല്ലാത്തിനും ഞങ്ങളുടെ അയല്വാസികൾ ഞങ്ങളെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ബന്ധു ജനങ്ങളും എല്ലാവരും ഞങ്ങളുടെ വളര് ഫാമില് ഞങ്ങളെ സഹായിക്കാന് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളുവായിട്ട് ബന്ധപ്പെട്ടൊരുപാട് മോശനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മൃഗങ്ങളുടെ പേരിൽ ഞങ്ങളൊരുപാട് ഞങ്ങൾ വളര്ത്തുന്ന ഫാമിലെ പശുക്കളുടെ പേരിൽ അവര്ക്ക് വേണ്ടീട്ട് ഞങ്ങളൊരുപാട് പ്രശ്നങ്ങള് സഹിച്ചിട്ടുണ്ട് രാത്രീലുറക്കമൊഴിച്ച് അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ചില അസുഖങ്ങള് വരുമ്പോള് പശുവിന്റടുത്ത് ഉറക്കമൊഴിച്ച് ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് വളര്ത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാന് പറ്റാത്ത ചില രോഗങ്ങൾ വന്ന് കഴിയുമ്പം ചിലത് നമ്മുടെ ഫാമിലീലുള്ളവര്ക്കും പിടിക്കുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കവരെ കൊന്ന് കളയേണ്ടി വരുന്നു മൃഗങ്ങളെ നമുക്ക് കൊന്ന് കളയേണ്ടി വരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഈ ഒരു മേഖലയിൽ ഞങ്ങൾ വര്ക്ക് ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്